ഹലോ സെൻ ജോസഫ് ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം ആ ഡോക്ടർ ആര്യ ആണ് സംസാരിക്കുന്നത് എന്തായിരുന്നു എത്ര ദിവസായി തുടങ്ങിയിട്ട് ആണോ ആ ആ വേറെന്താ ബുദ്ധിമുട്ടുള്ളത് നിങ്ങളുടെ ബുദ്ധിമുട്ടെന്താന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഡീറ്റേയിലായിട്ട് പറഞ്ഞു തരണം എന്നാൽ മാത്രമേ അതിനനുസരിച്ച് മരുന്ന് കുറിച്ച് തരാൻ പറ്റുള്ളൂ ബോഡി പെയിൻ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ബോഡി പെയിൻ രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ആ കഫകെട്ടുണ്ടായിരുന്നോ കഫക്കെട്ട് ചുമ ആ ആ മഴകൊണ്ടിരുന്നോ ആണോ വീട്ടില് വേറാർക്കെങ്കിലും പനി കാര്യങ്ങൾ ഉണ്ടായിരുന്നോ ഫ്രണ്ട്സിന് അങ്ങനെ ആർക്കെങ്കിലും ആണോ ആ കോവിഡ് ആകാനൊന്നും ചാൻസില്ലല്ലോ അങ്ങനെ വല്ല സമ്പർക്കവും ഉണ്ടായിരുന്നോ പിന്നെ ഏതേലും മരുന്ന് കഴിച്ചിരുന്നോ പറഞ്ഞ് മേടിച്ച് കഴിച്ചോ അല്ലെങ്കിൽ ഡോക്ടറെ റിക്വസ്റ്റ് പ്രകാരമാണോ ആ ഇനി അങ്ങനെ കഴിക്കരുത് എത്ര ഡോസാണ് എടുത്തത് അഞ്ഞൂറ് എം ജി ആണ് എടുത്തതല്ലേ ആ ഇപ്പം നന്നായിട്ട് പനി നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് വരാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ടു ദിവസത്തേന് വാട്സപ്പിലേക്ക് മരുന്ന് കുറിച്ചിട്ടു തരാം അത് നിങ്ങള് മേടിച്ച് കഴിക്കുക അതിനുശേഷം ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരിക കേട്ടോ ശരി